ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എ ബി സി ലാപ്ടോപ്പിനെ കുറിച്ചുള്ള ഒരു ടോട്ടൽ റിവ്യൂ ആണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ലാപ്ടോപ്പിന്റെ വാല്യുവേഷൻ കുറച്ചു കൂടിപ്പോയോയെന്ന് നമ്മള് ഇതിന്റെ ലോഞ്ച് പ്രഖ്യാപിച്ചപ്പോഴേ നമ്മളൊരു വേല്വേഷൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിൽ വെച്ച് കുറച്ച് അധികം കൂടിപ്പോയോ ഈ ഒരു വാല്യൂവിന് ഈ ലാപ്ടോപ്പും ഇതിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടോ എന്നതാണ് നമ്മള് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിലുള്ള അവൈലബിളായിട്ടുള്ള ലാപ്ടോപ്സിനെ കാട്ടിലും കുറഞ്ഞ ഫീച്ചേഴ്സ് ആണ് അതിലേക്കാട്ടിലും കുറഞ്ഞ റാമേ ഇതിലുള്ളൂ ഗ്രാഫിക് കാർഡ് ആണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ ആണെങ്കിലും കുറച്ച് കുറഞ്ഞ ഫീച്ചേഴ്സ് ആണ് പക്ഷേ അതിന്റെ വേല്വേഷൻ കുറച്ച് വല്ലാതെ കൂടിപ്പോയി പിന്നെ ഇതില് സ്റ്റാർട്ടിങ്ങ് തന്നെ ഒരു ലാഗ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിന്റെ പെർഫോമൻസ് ആ ഒരു ഇതിന്റെ ഒരു വേല്വേഷന്റെ അത്ര ഒരു പെർഫോമൻസ് നമുക്ക് തരുന്നില്ല നല്ലൊരു ലാഗ് ആണ് നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങ് സ്റ്റാർട്ടിങ്ങ് ലോഗോ കാണിച്ചിട്ട് പിന്നേ ബൂട്ട് ബൂട്ടിന് ശേഷം ലോഗോ കാണിച്ച് അങ്ങനെ എടുത്തു വരുന്നതാണെങ്കിലും എല്ലാത്തിനും ഒരു ഒരു ചെറിയൊരു ലാഗ് ഇന്ന് ഇന്നുണ്ട് പിന്നെ മാത്രമല്ല ഇതിന്റെ ഇൻബിൽട്ട് മൗസ് ആണെങ്കിൽക്കൂടി മൗസിനൊരു നല്ലൊരു സ്ലിപ്പുണ്ട് നമ്മള് വിചാരിച്ച പോലൊരു കഴ്സർ വിചാരിച്ച പോലെ അനങ്ങുന്നില്ല നല്ല രീതിക്ക് ഒരു സ്ലിപ്പ് കാണുന്നുണ്ട് മൗസിലും പിന്നെ ഗ്രാഫിക്സ് നമുക്ക് ഇൻബിൽട്ട് ഗ്രാഫിക്സ് വെർച്വൽ ഗ്രാഫിക്സ് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ അത് ആ ഒരു വെർച്ചൽ ഗ്രാഫിക്സ് ആണെങ്കിൽ പോലും നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫോമൻസ് ഇപ്പോൾ നമ്മള് നല്ലൊരു ഗെയിം എടുത്തു കളിക്കുകയാണെങ്കിൽ അതില് ഒരു സ്ക്രീൻ റൈറ്റ് ആയാലും റിഫ്രഷ് റൈറ്റ് ആണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ആ ഒരു നല്ല ബുദ്ധിമുട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കാരണം ഈയൊരു വേല്വേഷനില് നമുക്ക് ഇതിനെ കാട്ടിലും വളരെ വളരെ നല്ല ലാപ്ടോപ്പുകൾ ഇന്നിപ്പോൾ മാർക്കറ്റില് അവൈലബിൾ ആണ് അതുകൊണ്ടുതന്നേ എന്തുകൊണ്ടാണ് ഇവര് ഇതിന് ഇത്രയും വലിയ ഒരു വേല്വേവേഷൻ കൊടുത്തിരിക്കണെ അല്ലെങ്കിൽ ഇത്ര ഹ്യൂജ് പ്രൈസ് കൊടുത്തിരിക്കണെ എന്നത് നമുക്ക് ഭയങ്കര ഒരു അതിശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നേ രണ്ടാമത് നമ്മള് നോക്കണെ ഇതിന്റെ ബിൽഡ് കോളിറ്റി കവർ അത് ഓവറോൾ കേസിംഗ് അത്യാവിശ്യം സ്ട്രോങ്ങ് ആണെങ്കിൽ കൂടി അതിന്റെ കീബോർഡ് പിന്നെ മോണിറ്ററിൻ്റെ ഫിറ്റിംഗ്സ് അതിലൊന്നും അത്ര ഒരു ഒരു ഒരു കമ്പനിയുടെ ആ ഒരു കോളിറ്റി മെയിന്റയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് അതിന്റെ കീസ് ആണെങ്കിലും നമ്മുടെ ആ ഒരു ഒരു സ്മൂത്നെസ് കീസ് കീസ് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്മൂത്നെസ്സിന്റെ ഒരു കുറവ് നന്നായിട്ട് പ്രകടമായിട്ട് കാണുന്നുണ്ട് പിന്നേ രണ്ടാമത് നോയിസ് ആണ് അതായത് ഫാനിന്റെ നോയിസ് ഇവര് കൂളിംഗ് മെച്ചപ്പെടുത്താൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ഫാനിന്റെ സൗണ്ട് കുറച്ച് നല്ലോണം കൂടുതലാണ് പക്ഷേ എങ്കിൽ അതിനനുസരിച്ചൊരു കൂളിംഗ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നമ്മളൊരു വൺ അവർ വർക്ക് ചെയ്യുമ്പോഴേക്കും അതിന്റെ ബാറ്ററി തൊട്ട് ആ ഒരു ഏരിയ ഫുൾ നല്ലോണം ടെമ്പറേച്ചർ നല്ലോണം ചൂടായി വരുന്നുണ്ട് പക്ഷേ ഫാനിന്റെ നോയിസ് ആണെങ്കിൽ ഒട്ടും കുറവുമില്ല നല്ല രീതിയ്ക്ക് നോയിസും വരുന്നുണ്ട് അതുകാരണം സുഹൃത്തുക്കളേ നിങ്ങള് വളരെ ആലോചിച്ച് നല്ലോണ്ണം കമ്പയർ ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തണം എന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ആലോചിച്ച് മാർക്കറ്റിലുള്ള മറ്റു പ്രോഡക്ടുമായിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കുക അത്യാവിശ്യം ഡിസൈൻ കളർ വേരിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കുകയാന്നെങ്കിലും പക്ഷേ നമ്മള് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് പെർഫോമൻസും ബിൽഡ് ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് വാങ്ങിക്കാൻ ആണ് പറയുന്നത്